പാലക്കാട് ജില്ലയില് ഇപ്പോൾ സാമൂഹ്യക്ഷേമവികസന പരിപാടികളുടെ മുഴുവൻ ചുക്കാനും ഈ മഹിള മഹിളകളുടെ കൈയ്യിലാണ് കുടുംബശ്രീകളുടെ കൈയ്യിലാണ് അല്ലെങ്കിൽ അവരെ ബേസ് ചെയ്തുകൊണ്ട് ആണ് സർക്കാർ ഈ പരിപാടി നടപ്പിലാക്കണത് പിന്നെ സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് അത് സ്കൂളുകളിൽ ആകെക്കൂടിയാണ് പോഷകാഹാരം കൊടുക്കണത് ഇ എം എസ് ഭവനപദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു പരിപാടിയായിട്ട് മാത്രം കാണാൻ പറ്റുള്ളൂ അതിൽ രാഷ്ട്രീയവും അല്ലാതെ കോമൺലി അത്ര എല്ലാവർക്കൊന്നും കിട്ടുകയൊന്നും ഇല്ല ഭവനപദ്ധതി പൊതുവേ ഒരു വർഷത്തേക്ക് ഇത്ര ഭവനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ഇത്ര ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റൂ എങ്കിൽ അത് ചെയ്ത് ആ ആ അതില് തെരഞ്ഞെടുക്കുക അതിനിപ്പോൾ ഒരു പത്തു കൊല്ലത്തേക്ക് ഉള്ള പദ്ധതിയുടെ ആൾക്കാർ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കണവരുണ്ട് അതുകൊണ്ട് തന്നെ അത് അത് കിട്ടാനോ അല്ലെങ്കിൽ അത് കൃത്യമായി കാര്യങ്ങള് ചെയ്ത് അവസാനിപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും അതിൽ നിന്ന് കിട്ടുന്നവരും ഉണ്ട് കിട്ടിയവരും ഉണ്ട് അതുകൊണ്ട് ഈ ഭവനം നിർമ്മിച്ചവരുണ്ട് ഇപ്പോഴുമുണ്ട് അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവര് ആണ് അത് ആ ഭവന പദ്ധതി ഉപകാരപ്പെടുത്തുന്നത് പിന്നെ ആരോഗ്യസംരക്ഷണം എന്ന് പറയാം അല്ലേൽ ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറയാൻ പൊതുവേ കേരളത്തിലെ ജനങ്ങൾ അല്പം വിദ്യാഭാസപരമായി ഉയർന്ന രീതിയിലുള്ളവരായതു കൊണ്ടും സാംസ്കാരികമായ ഉന്നമനം ഉള്ളവരായതു കൊണ്ടും അതിന് സ്വന്തമായി തന്നെ എല്ലാവരും ഒരു സെൽഫ് കോൺഫിഡൻസ് പോലെ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ആർജ്ജിച്ചവരാണ് അതുകൊണ്ട് തന്നെ സർക്കാര് പദ്ധതിയെ ആശ്രയിച്ച് നിൽക്കാൻ വളരെ കുറവാണ് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള സാമൂഹ്യ ക്ഷേമവികസനപരിപാടികള് സംരംഭങ്ങളൊക്കെ പെടുത്തുന്നുണ്ട് അതിലിപ്പോൾ മെയിനായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ ഉള്ള പദ്ധതികളാണ് ഇതേ പോലെ സ്ത്രീശക്തീകരണത്തിന് കണ്ടെത്തിയിരിക്കുന്നത് അത് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് തെറ്റായ രീതിയിലാണ് നടത്തണത് എങ്കിലും നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ കാശ് അടിച്ചുമാറ്റൽ പരിപാടി കൃത്യമായ് നടക്കുന്നുണ്ട്